നമ്മുടെ പ്രദേശത്ത് പ്രാഥമിക തൊഴിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലുകളുണ്ട് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ തൊഴിലായിട്ടും അങ്ങനെ ഒക്കെ പറയുകയാണേൽ ഒരുപാട് തൊഴിലുണ്ട് അതായത് ഉദാഹരണത്തിന് മൺപാത്ര നിർമ്മാണം പിന്നെ നെയ്ത്ത് ശിൽപ്പ നിർമ്മാണം പിന്നെ കൃഷി അങ്ങനെയുള്ള ഒരുപാടുണ്ട് കാരണം ഇതിനെ കുറിച്ച് കൂടുതലറിയാൻ ഉണ്ടെങ്കിൽ തൊഴിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അതായത് വിദേശികൾ കാര്യങ്ങളൊക്കെ അതായത് വി വിദേശികളായ വിനോദസഞ്ചാരികൾ ഒക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂടുതലും വരുന്നത് മൺപാത്ര നിർമ്മാണം കാണാനൊക്കെ ഒരുപാട് വിദേശികൾ വരും പിന്നെ അവർക്ക് കൃഷി കാണാൻ അതായത് കൃഷി കാര്യങ്ങൾ ഒന്നും അവർ അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ കാരണം വയൽ പ്രദേശങ്ങൾ അങ്ങനെ ഒന്നും അവർക്ക് വലിയ പിടിത്തം ഒന്നും ഇല്ല അതായത് അവർക്ക് ഇങ്ങനെ അതായത് പൂത്തുനിൽക്കുന്ന നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ അവർക്ക് ഭയങ്കര ഇൻറെറസ്റ്റ് ആയിരിക്കും അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു പുതിയ ഒരു അനുഭവങ്ങളായിട്ട് മാറും ചെയ്യും അങ്ങനെ പിന്നെ അതുപോലെ ശിൽപ്പ ശിൽപ്പ നിർമ്മാണം അതായത് ശിൽപ്പ നിർമ്മാണമൊന്നും അവർ ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാനും അത് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അതായത് അങ്ങനത്തെ വൈബൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടാകും അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഒരുപാട് വരാറും ഉണ്ട്